സ്ത്രീകൾ നിത്യേന നേരിടുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരുപാടാണ് സ്ത്രീകൾ മാത്രമല്ല ചെറിയ കുട്ടികളും വയസ്സായ സ്ത്രീകളുമൊക്കെ നിത്യേന ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്ത്രീകള് യാത്ര ചെയ്യുമ്പോൾ തന്നെ അനാവശ്യ നോട്ടം അനാവശ്യ സ്പർശം അതുപോലെ തന്നെ ഒരു ചർച്ചയിലോ ഒരു സഭയിലോ ഒരു സമൂഹത്തിലോ ഇറങ്ങി ചെല്ലുമ്പോൾ സ്ത്രീകൾക്കൊന്നും സംസാരിക്കാൻ ഒരിടം പോലും കൊടുക്കാറില്ല എന്നുള്ളത് ഇപ്പളത്തെ വലിയൊരു പ്രശ്നമാണ് അവർക്കവരുടെ ആശയങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ പങ്ക് വയ്ക്കാൻ ഒരു സഭയിലൊരു അവസരം പോലും കൊടുക്കാറില്ല ഇപ്പം പലരും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വികസനത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കൂടുതലാണ് പഴയകാലത്ത് ഭർത്താവിൻ്റെ തണലിലും അടുക്കളകളിലും വീടുകളിലും മാത്രം ഒതുങ്ങി ഒതുങ്ങി ഇരിക്കേണ്ടി വന്ന സ്ത്രീകൾ ഇപ്പോളങ്ങനെ അല്ല ഈ ഏറ്റവും നോക്കിക്കാണുന്ന ഏറ്റവും അഭിമാനത്തോടെ നോക്കിക്കാണുന്ന പല വലിയ പദവികളിലേക്കാണ് സ്ത്രീകൾ എത്തിക്കപ്പെട്ടിരിക്കുന്നത് ഐ എ എസ് ഐ പി എസ് എന്നുള്ളത് പോലെ വലിയ വലിയ പദവികളിലേക്കാണ് സ്ത്രീകൾ എത്തി നിൽക്കപ്പെട്ടിരിക്കുന്നത് അവര് ഏറ്റവും ധൈര്യത്തോടെ തന്നെ ഇത്തരം പദവികൾ ഏറ്റെടുത്ത് കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും ഇന്ത്യ അതിൽ പിന്നോക്കം തന്നെയാണ് ഒരു സ്ത്രീ അമ്മയും പെങ്ങളും എന്ന പോലെ കാണാൻപറ്റാത്ത കുറെ ഏറെ മനുഷ്യന്മാർ ഇപ്പളും സ്ത്രീകളെ ഉപദ്രവിക്കുന്നുണ്ട് ബലാത്സംഗം പീഡനം ഒക്കെ നിരന്തരം നടന്ന് കൊണ്ടിരിക്കുന്ന ഒരുസ്ഥലം തന്നെയാണ് ഇന്ത്യ ഇപ്പളും അതിലൊരു മാറ്റം വരണം മാറ്റം വരുത്താനൊരുപാട് രീതീയിലുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ അതൊന്നും അത്ര പ്രാബല്യത്തിൽ വരുന്നില്ല എന്നുള്ളത് സത്യമാണ് ജോലി സാധ്യതകളിലും പഠനസാധ്യതകളിലുമൊക്കെ സ്ത്രീകൾ തുല്യരാണോ എന്ന് ചോദിച്ചാൽ ഒരു തരത്തിൽ നോക്കുമ്പോൾ തുല്യരാണ് പക്ഷേ മറ്റൊരു രീതിയിൽ നോക്കുമ്പോൾ തുല്യരല്ലതാനും അവർക്ക് കാശിൻ്റെ പൈസയുടെ വലിയ പ്രശ്നങ്ങൾ കാരണം പഠിക്കാൻ പറ്റാത്തവർ അതുപോലതന്നെ പല സാഹചര്യങ്ങൾ കാരണം പഠിക്കാൻ പറ്റാത്ത ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പോൾ അവർക്ക് ജോലി സാധ്യതകളിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ മറ്റൊരു കൂട്ടം സ്ത്രീകൾ തുല്യതയിലേക്ക് എത്തുന്നുണ്ട് പക്ഷെ എന്നാലും ഈ തുല്യത പഠനസാധ്യതകളിലും ജോലിസാധ്യതരു ജോലിസാധ്യതകളിലും ഉള്ളൊരു തുല്യത കുറെ കുറവാണ് എന്നാലും പല നീക്കങ്ങളും ഇതിന് എതിരെ എടുക്കുന്നും ഉണ്ട്